ഞാൻ യൂസ് ചെയുന്നത് ഇൻ്റക്ഷൻ കുക്കറാണ് ഇൻ്റക്ഷൻ കുക്കർ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്ട് തന്നെ ആണ് കാരണം എന്താണെന്നു വച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചായ ഉണ്ടാക്കാനും കാപ്പി ഉണ്ടാക്കാനും ഏതെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തന്നെ ഒരു എളുപ്പമുള്ളൊരു പ്രോഡക്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ മെയിൻ ആയിട്ട് ഇതിന് കറൻ്റ് ആണ് വേണ്ടത് കറൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കാവുന്നതാണ് പിന്നെ എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുനടക്കാനും എല്ലാത്തിനും നല്ലതാണിത് പിന്നെ എങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാൽ കറൻ്റ് ഇല്ലാത്ത സമയത്ത് ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല കാരണം കറൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ചാർജ് കൊടുക്കുന്നത് പിന്നെ സ്റ്റീൽ പാത്രങ്ങളാണ് ഇതിൻ്റെ മണ്ടയിൽ വച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ വച്ചാൽ അലൂമിനിയം പാത്രം ഇതായിട്ട് ഡിറ്റക്ട് ചെയ്യില്ല സ്റ്റീൽ പാത്രത്തിൽ വച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാപ്പി വയ്ക്കാനും അത് ബിരിയാണി ആണെങ്കിലും വയ്ക്കാനും സ്റ്റീൽ പാത്രം തന്നെയാണ് പറ്റുള്ളൂ